റബ്ബറായിരുന്നു റബ്ബറിൻ്റെ പാലും എല്ലാം തീർന്ന് കഴിഞ്ഞപ്പഴ്ത്തേന് അത് വെട്ടി കളഞ്ഞ് കഴിഞ്ഞപ്പഴ്ത്തേന് ആ സ്ഥലത്തോട്ട് നമ്മൾ കുറച്ച് വാഴേം വെച്ചു അതിനകത്ത് ഇഞ്ചിയും മഞ്ഞളും നട്ടു പാവൽ പയർ പടവലം കുറെ ചീരയെല്ലാം നട്ടു അങ്ങനെ നല്ല രീതിയിൽ അതെല്ലാം പിടിച്ച് വന്നപ്പോഴ്ത്തേനാണ് ഒരു മഴ വന്നത് അത് മൂന്ന് ദിവസക്കാലം ആ മഴയങ്ങോട്ടൊന്ന് ഒരു നോൺ സ്റ്റോപ്പായിട്ടങ്ങ് പെയ്ത് കഴിഞ്ഞപ്പഴ്ത്തേന് പാവൽ പയർ പടവലത്തിൻ്റെയെല്ലാം തണ്ടുകളെല്ലാം ചീഞ്ഞ് അഴുകി അതെല്ലാം പോയി ചീരയെല്ലാം പോയി പിന്നെ മൂന്ന് ദിവസത്തോളം വെള്ളം അതിനകത്ത് കയറി കിടന്നപ്പോഴ്ത്തെന് ചെമ്പിൻ്റെ എല്ലാം തണ്ടും എല്ലാം ചീഞ്ഞ് അഴുകി അതെല്ലാം അങ്ങനെ ആയിപ്പോയി കാലാവസ്ഥയിൽ ജീവിക്കാൻ മറ്റൊരു മാർഗ്ഗം ഇല്ലാത്ത കൊണ്ടാണ് നമ്മളീവക കാര്യങ്ങൾക്ക് പോകുന്നത് ഇതല്ലാതെ നമുക്ക് വേറെ ഒരു മാർഗ്ഗം ചെയ്യാനും പറ്റുന്നില്ല പക്ഷേ ചെയ്ത് കഴിയുമ്പഴ്ത്തേനിതാ പിന്നേം നമ്മൾ കുറച്ച് മണ്ണുവെല്ലാം എടുത്ത് അടിച്ച് അവിടെ കുറച്ചൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നേം നമ്മൾ ഇപ്രാവശ്യം പാവലും പടവലോം എല്ലാം ഇട്ടിരിക്കുകയാണ് എന്നത്തേന് മഴവരും ഇന്ന് പെയ്യോ നാളെ പെയ്യോ എന്നോർത്തോണ്ടാണ് ഇരിക്കുന്നത് വെയിൽ തെളിഞ്ഞ് കഴിഞ്ഞാലൊരു വല്ലാത്തൊരു വെയിലാണ് രാവിലേം ഉച്ചക്കും വൈകുന്നേരോം വെള്ളം ഒഴിച്ചാലും ആ തൈയൊന്നും പിടിച്ച് നിക്കേലാത്ത രീതിയിലുള്ള വെയിലാണ് വരുന്നത്